വയനാട് ജില്ലയിൽ ഏറ്റവുംകൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് വന്യമൃഗശല്യങ്ങൾ ഇത് വന്യമൃഗശല്യങ്ങൾ കാരണം നമുക്ക് കൃഷി ചെയ്യുമ്പോൾ അതിൽനിന്നും നമുക്ക് വിളവുകൾ ഒന്നും കുറഞ്ഞു വരുന്നു കാരണം മൃഗങ്ങൾ പകുതിയും തിന്നിട്ടുപോകുന്നു നശിപ്പിച്ചുപോവുന്നു അങ്ങനെ ഒരുപാട് കർഷകർ ഇതിനെ നേരിടുന്നുണ്ട് പിന്നെ മഴക്കെടുതിയൊക്കെ വന്ന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ഒരുപാട് കൃഷികൾ നശിക്കുന്നത് മൂലം ആൾക്കാർക്ക് ഇത് ചെയ്യാനുള്ള താല്പര്യം കുറയുകയും അങ്ങനെ വയനാട്ടില് കൃഷി കുറഞ്ഞവരുമ്പോ നമ്മൾ അന്യസംസ്ഥാനങ്ങളിൽ നിന്നു കൃഷി ഉല്പന്നങ്ങൾ ഇറക്കുമ്പോൾ അതിനനുസരിച്ചത് വിലകൂടുതല് അങ്ങനെ വരുന്നു പിന്നെ മോശം ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങളൊണ്ട് കാരണം പിന്നെ നൂതന ആധുനിക സൗകര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ അത് നമ്മൾ അത് മറ്റു ജില്ലകളെ ആശ്രയിക്കേണ്ടി വരുന്നു അങ്ങനെ പിന്നെ മലിനീകരണം അതും കടുത്ത ഒരു ഇതാണ് വയനാട് ജില്ല നേരിടേണ്ടിവരുന്നത് മലിനീകരണം ഒരുപാട് പ്രദേശങ്ങളിൽ ഒത്തിരി ഏറെ അനുഭവപെടുന്നുണ്ട് ആൾക്കാർക്ക് അത്